ഞാനൊരിക്കൽ തൊടുപുഴയ്ക്ക് യാത്ര ചെയ്യുകയുണ്ടായി യാത്ര ചെയ്തത് ഒരു പാസഞ്ചർ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലായിരുന്നു ആ ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ അതുപോലെ ആ ബസ്സിന് മുകളിലായി ഒരു ബാഗ്ഗുകളും അതുപോലെ കുപ്പിയും നമ്മുടെ കയ്യിലുള്ള ലഗ്ഗേജ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു സെറ്റിംഗ്സും ഉണ്ടായിരുന്നു അതുപോലെത്തന്നെ എനിക്ക് ഏത് എപ്പട്ടി പോയാലും ഏതു യാത്രയ്ക്ക് ഞാൻ പോയാലും എനിക്ക് ഈ ജനലിൻ്റെ അറ്റത്തിരിക്കണം കാരണം എനിക്ക് വോമിറ്റിംഗ് റ്റെണ്ടൻസി ഉള്ളതുകൊണ്ടുതന്നെ എനിക്ക് കാറ്റുകൊണ്ട് ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എനിക്ക് ഈ ദൂരയാത്ര ചെയ്യാൻ പേടിയായിരുന്നു പക്ഷേ എങ്കിൽപ്പോലും ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സുകളിലാണ് കൂടുതലും കയറുന്നത് അവിടുത്തെ സീറ്റുകളാണെങ്കിൽക്കൂടെ നല്ല നീറ്റായിരിക്കും അതുപോലെ ഒരു മൂന്നാൾക്ക് ഒരു സൈഡിൽ മൂന്നാൾക്ക് ഇരിക്കാൻ തന്നെ അവർ ബസ്സിലാണെങ്കിലും സ്ഥലമുണ്ടായിരിക്കും ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനാണെങ്കിൽക്കൂടി ആളുകളും സഹകരിക്കാറുണ്ട് അതിപ്പോൾ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കാഴ്ചകൾ കണ്ടുപോകുവാനും അതുപോലെ പാട്ടുകേട്ട് പോകുവാനും ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലാകുമ്പോൾ തന്നെ കൂടുതൽ തിക്കും തിരക്കും ഇല്ലാതെ നമുക്ക് ഒതുങ്ങിയിരുന്ന് പോവാം അത്യാവശ്യം സീറ്റുകൾ ഒരുപാട് ഒരു പാസഞ്ചർ ബസ്സിലുണ്ടാവും ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിലാണെന്നുണ്ടെങ്കിൽ രണ്ടു സീറ്റ് വച്ചിട്ടുള്ളൊരു സീറ്റുകളായിരിക്കും ഉണ്ടാവുക പക്ഷെ ട്രാൻസ്പോർട്ടിൽ എന്നു വച്ചാൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ ഒരു മൂന്നാൾക്ക് ഇരിക്കാം അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടാൾക്ക് ഇരിക്കാം ഒരുപാട് ആളുകൾ കയറുന്നുണ്ടെങ്കിൽക്കൂടി അതൊരു തിക്കായിട്ട് തിങ്ങി തിങ്ങി ഞെരുങ്ങി പോകുന്നൊരവസ്ഥയായിട്ട് വരുന്നില്ല ട്രാൻസ്പോർട്ടസ് ബസ്സുകളിൽ എൻ്റെ യാത്ര ആദ്യമെല്ലാം കഠിനമായിരുന്നു കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ദൂരയാത്ര എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് വോമിറ്റിങ്ങ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ സ്ഥിരമായിട്ട് അതിൽ യാത്ര ചെയ്ത് തുടങ്ങിയതോടെ അതിനെല്ലാം മാറ്റം വന്നു ഇന്ന് ഞാനിപ്പോൾ എവിടെ പോകുമ്പോൾപ്പോലും ഇപ്പോൾ പാലക്കാടേക്കായിക്കോട്ടെ അല്ലെങ്കിൽ എറണാകുളത്തേക്കായിക്കോട്ടെ തൊടുപുഴ ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ ഈ ബസ്സുകൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത് ഈ ബസ്സിൽ പോകുന്നതുകൊണ്ടുതന്നെ പല ആളുകളേയും പരിചയപ്പെടാൻ കഴിയുന്നു പല കാഴ്ചകൾ കാണാൻ കഴിയുന്നു പല സ്ഥലങ്ങളിലൂടെ പോവാൻ കഴിയുന്നു ഒരു സുരക്ഷിതമായി പോവാൻ കഴിയുന്നൊരു ബസ്സ് ഒരു വാഹനമായിട്ട് ഞാൻ ഈ പാസഞ്ചർ ബസ്സിനെ കാണുന്നു അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റാണെങ്കിലും ഡ്രൈവറിന് ഇരിക്കാനാണെങ്കിലും നല്ല പെർഫെക്റ്റായ സീറ്റായിരിക്കും അതുപോലെ ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും ഇന്ന് ബസ്സുകളിൽ പണ്ടല്ലാമെന്നു വച്ചാൽ ഈ കണ്ടക്ടർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇന്ന് കണ്ടക്ടർക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളേ ഉള്ളൂ കാരണം ഏതു നേരവും കണ്ടക്ടർ എഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഒരു സീറ്റ് കണ്ടക്ടർക്ക് വേണ്ടിയിട്ട് ആ ബസ്സിലുണ്ട്